ഹലോ ആ അതെ ആ

ആ ഞാൻ ഇപ്പോൾ എൻ്റെ ഡിസൈനറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ജ്വല്ലറിയിലേക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഓർണമെൻസ് ഒക്കെ വേണം എന്ന് അപ്പോൾ അവർ അതിൻ്റെ ഇത് ഏർപ്പാടാക്കുന്നുണ്ട് ഞാൻ പറയാം ആ ആ ട്രഡീഷണൽ ടൈപ്പിൽ ഉള്ളതല്ലേ

ഓ ഓ ഞാൻ അതിന് അതിന് ഏർപ്പാടാക്കാം അല്ല നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം ചെയ്യുമ്പോൾ പണിക്കൂലി കൂടും അതാണ് ഞാൻ ജ്വല്ലറിയിലേക്ക് അധികം ഇതാക്കാത്തത് ആ അങ്ങനെ കുറേപ്പേർ വന്നിട്ടുണ്ടോ ആ നമുക്ക് അത് തുടങ്ങാമായിരുന്നു

ആ നാളെ ഞാൻ എന്ത്ന്നാ കണ്ണൂർ വിളിച്ചു പറയാം ആ ആ എന്നാൽ ശരി ഓക്കേ